കളികൾ എങ്ങനെയാണ് സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സാമ്പിള് നമുക്ക് ഫുട്ബോള് കളി എടുക്കാം ഫുട്ബോളുകളി നടക്കുന്നുണ്ടെങ്കില് പല ജാതിയില്പ്പെട്ട പത പല മതത്തില്പ്പെട്ട പല സാഹചര്യത്തില്പ്പെട്ട ആളുകളാണ് അവിടെ കളിക്കിന്നത് അത് കളിക്കുന്ന ടീമിലായാലും കാണുന്ന കാണികളിലായാലും അവ അവിടെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നവരായാലും പല രീതിയിലാണ് സാമുഹിക ഐക്യം അവിടെ ഉണ്ടാകുന്നതെന്നാണ് എന്ന് പലരും അതായത് പല ജാതിമതത്തില്പ്പെട്ടവര് സപ്പോട്ട് ചെയ്യുന്ന ടീമൊന്നായിരിക്കും അവിടെത്തന്നെ ഒരു സാമൂഹിക ഐക്യം വന്നുകഴിഞ്ഞു അപ്പം ഈ കളിയെന്ന് പറയുന്നത് ഒരു ഒരു ഒരൂ ആ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇതില് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടും അതൊരു ഒരു എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യമാണ് പലരും തമ്മിലുള്ള ബന്ധങ്ങള് സ്താപിക്കാനും പല ജാതിമതത്തില്പ്പെട്ടവര് ജാതിയോ മതമോ എന്തുവാ കളറോ എന്നതിലുപരി അവിടെ ഒരു എല്ലാവരും സപ്പോട്ട് ചെയ്യുന്ന ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനം അതാണ് മെയിന് ആയിട്ടും വരുന്നത് ഇപ്പോൾത്തന്നെ ഇന്റര്നാഷണല് ഫുട്ബോള് എടുത്തു കഴിഞ്ഞാല് അതിൽ നോക്കിയാൽ മതി പല കറുത്ത വര്ഗ്ഗക്കാര്ക്ക് എതിരേയുള്ള ആക്ഷേപമുണ്ട് അതേസമയം തന്നെ അതിനെ സപ്പോട്ട് ചെയ്യാത്തൊരു വിഭാഗവുമുണ്ട് അത് കറുത്ത വര്ഗ്ഗക്കാർ മാത്രമല്ല അതിൽ പല ജാതിമതത്തില്പ്പെട്ട ആളുകൾ വരുന്നു അത് ഒരു തെറ്റിനെ തെറ്റെന്ന് കാണിക്കാനും പല രീതിയിലുള്ള പ്രൊട്ടെസ്റ്റുകള് നമുക്ക് എടുക്കാനും ഈയൊരു കളിയിലൂടെ പറ്റും കളികൾ മനുഷ്യന്റെ ഐക്യ ഐക്യ ബോധത്തെയും മനുഷ്യന് ഒന്നാണ് ഇന് ജസ്റ്റിസിനെതിരെ ഒന്നായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ബോധവും എപ്പോഴും നല്കുന്നൊരു ഒരു ഒരു ഇതു തന്നെയാണ് കളികളെന്ന് പറയുന്നത്